ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ വാരികകൾ അതുപോലെത്തന്നെ ദീപിക സപ്ലിമെൻ്റ് ഇതൊക്കെ വായിക്കുമായിരുന്നു ആ ദീപിക സപ്ലിമെൻ്റിലും വാരികയിലും ഒക്കെ ഓരോ കഥാപാത്രങ്ങളെ കാർട്ടൂണിസ്റ്റ് വരച്ച് കാണിച്ചിരുന്നു അതിനെ അനുകരിച്ച് ഓരോരുത്തരുടെ പടങ്ങൾ വരയ്ക്കുക ഇതൊക്കെയാണ് ചെറുപ്പകാലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ മനസ്സിൽ ഓരോ കഥാപാത്രങ്ങൾ ആ നോവൽലും ഒക്കെ വരുമ്പോൾ ആ കഥാപാത്രങ്ങളെ മനസ്സിൽ വരച്ച് കാണിക്കാൻ അതിനോട് യോജിച്ച രൂപത്തിൽ നിറം കൊടുത്തും ഒക്കെ വരയ്ക്കാനാണ് താൽപര്യപ്പെടുന്നത് അതുപോലെ ചില പൂക്കൾ അതുപോലെ ചില മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഇതൊക്കെ ചെറുപ്പകാലത്ത് തന്നെ വരക്കാനെനിക്ക് താൽപര്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു പിന്ന വരയുടെ ആരുടെ ആളുടെ ആരുടെയെങ്കിലും പേരെടുത്ത് മനസ്സിൽ സൂക്ഷിക്കുന്നില്ല ഓരോ കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഓരോ പത്രങ്ങളിലും മാസികകളും അതുപോലെത്തന്നെ എന്തൂട്ടാ ഡ്രോയിങ്ങ് പേപ്പറുകൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഡ്രോയിങ്ങ് പേപ്പറ്കൾ വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് വരച്ച് പെയിൻറ്റിങ്ങ് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ അന്ന് പഠിച്ചിട്ടും പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ അദ്ധ്യാപകർ അതിന് പ്രോത്സാഹനവും തന്നിട്ടുണ്ട് അത് പിന്നെയുള്ള വരക്ക് എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരു പ്രായപരിധിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ വരയിൽ നിന്നൊക്കെ മാറി കുടുംബജീവിതവും മറ്റുമായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ സെക്ഷനിലേക്കൊക്കെ മാറിപ്പോയി എന്നാലും ഇന്നും നല്ല നല്ല ചിത്രങ്ങളും വരകളും ഒക്കെ കാണുമ്പോൾ കാണാം അത് കൃത്യമായിട്ട് കാണാറുണ്ട് അതുപോലെ പേപ്പറിലെ പ്രത്യേക കാർട്ടൂൺ രസകരമായ ആംഗ്യഭാഷയിൽളും മറ്റ് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന ദ്വയാർത്ഥത്തിലുള്ള കാർട്ടൂണുകളൊക്കെ വായിക്കാനെനിക്കിഷ്ടമാണ് അതിൻ ഒളിഞ്ഞിരിക്കുന്ന ഫലിതങ്ങൾ കണ്ട് ആസ്വദിക്കാനും മറ്റുള്ളവരുവായി പങ്കിടുവാനും എനിക്ക് വളരെ താൽപര്യമുള്ളതാണ് അത് ചെറുപ്പകാലത്ത് കിട്ടിയ ആ വരയിൽ നിന്നും വാരികയിൽനിന്ന് കിട്ടിയ ശീലമാണെന്ന് കരുതുന്നു